അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എട്ട് ഒൻപത് രണ്ടായിരുത്തി ഇരുപത്തി രണ്ട് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്